ആ ഞാന് ഇഷ്ടം പോലെ തീയിൽ ഒക്കെ പാചകം ചെയ്തിട്ടുണ്ട് അപ്പം എന്റെ വിട്ടില് പറഞ്ഞാല് ഒരു അഞ്ചാറ് ഒരു അഞ്ചു വര്ഷം ഒക്കെ ആയിട്ടുള്ളൂ ഗ്യാസ് ഒക്കെ വന്നിട്ട് അതിന്റെ മുന്നേ പിന്നെ തീയിൽ തന്നെയാണ് ഞാന് പാചകം ചെയ്യാറ് അപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഗൃാസും അതായത് ഇന്ഡക്ഷന് കുക്കര് ഒക്കെ വെച്ച് നോക്കുമ്പം കുറച്ച് ലേറ്റ് ആവും ഫുഡ് ഒക്കെ ഉണ്ടാവാൻ ഉണ്ടാവണമെങ്കിൽ പിന്നെ നല്ലവണ്ണം തീ കത്തി കത്തുവാണെങ്കില് അതുപോലെ തന്നെ നല്ലവണ്ണം ഫുഡ് ഒക്കെ ആവും ചിലപ്പോള് തീ കെട്ടുപോവും അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടല്ലോ അപ്പം അതാണ് പ്രശ്നം പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൃാസില് നമ്മൾ രണ്ട് മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കില് രണ്ട് മാസം രണ്ടു മാസം കൂടുമ്പോള് ഗൃാസ് നിറയ്ക്കണം പിന്നെ തീ എന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മള് ഒരു വര്ഷത്തേക്ക് ഒരു രണ്ടു അട്ടി വിറക് ഇപ്പം ആയിരത്തി അഞ്ഞുറ് രൂപ ഉണ്ടാവും ചിലപ്പോള് ഒരു അട്ടിക്ക് അങ്ങനെ രണ്ട് അട്ടി വിറക് മേടിച്ചിട്ടുണ്ടെങ്കില് നമുക്ക് ഒരു വര്ഷം മുഴുവന് കത്തിക്കാം പക്ഷേ ഗൃാസ് ആണെങ്കില് അങ്ങനെ അല്ല നമ്മള് ഒരുപാട് പൈസ ചിലവാക്കണം അതുപോലെ ഇന്ഡക്ഷന് കുക്കര് ആണെങ്കില് കറന്റ് ബില്ലും ഓവര് ആവും അങ്ങനത്തെ പ്രശ്നങ്ങള് ഒക്കെ വരും അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പം നമ്മള് തീയിൽ തന്നെ പാചകം ചെയ്യുന്നതാണ് നല്ലത് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കില് തീയിൽ നമ്മള് എന്ത് എന്തെങ്കിലും പാചകം ചെയ്യുവാണെങ്കിൽ നമ്മൾ ഗൃാസില് ഇന്ഡക്ഷന് കുക്കറില് വയ്ക്കുന്നതിനേക്കാളും ടേസ്റ്റ് കൂടുതലാണെന്നൊക്കെ ഒരു പറഞ്ഞറിവ് കേട്ടിട്ടുണ്ട്